ഗതാഗത വ്യവസായത്തെ സാങ്കേതികവിദ്യ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു ബസ്സുകൾ ട്രെയിനുകൾ ഫ്ലൈറ്റുകൾ എന്നിവയുടെ ബു എന്നിവയുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാൻ മൊബൈലിലെ പല ആപ്പുകളും സഹായിക്കുന്നു കൂടാതെ ഇപ്പോൾ ഒരു ട്രെയ്നിനു പോകുന്ന വ്യക്തിക്കാണെങ്കിൽ അത് കൃത്യസമയത്ത് ബുക്ക് ചെയ്യാനും സീറ്റ് ഉറപ്പാക്കുവാനും അയാൾക്ക് എ എന്തോരം ദൂരം യാത്ര ചെയ്യണമെന്നും എത്ര എത്ര മണിക്കൂറിനുള്ളിൽ അവിടെത്തിച്ചേരുമെന്നും ഫോ അറിയാൻ സാധിക്കുന്നു ഇപ്പോൾ ട്രെയിനിലിരിക്കുന്നൊരു വ്യക്തിക്ക് തന്നെ അടുത്ത സ്റ്റോപ്പേതാണെന്നും എന്തോരം വൈകിയാണ് ട്രെയ്നവിടെ നിന്ന് എടുക്കുന്നതെന്നും അങ്ങനെ എല്ലാം കൃത്യമായിട്ട് അറിയാനായിട്ട് സഹായിക്കുന്നു കൂടാതെ ദൈനന്തിന ജീവിതത്തിൽ ഒരു വ്യക്തി ജോലി കഴിഞ്ഞു തളർന്നവശതയായി വരുമ്പോൾ അയാൾക്കൊരു സിനിമ കാണണമെന്നു തോന്നുകയാണെങ്കിൽ ഫോണിലൂടെ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇഷ്ടമുള്ള സിനിമ കാണാനും അയാൾക്കു സാധിക്കുന്നു കൂടാതെ വിശന്നിരിക്കുന്ന ഒരാളാണെങ്കിലയാൾക്ക് ഭക്ഷണം ഭക്ഷണത്തിനു വേണ്ടി ബുക്ക് ചെയ്ത ആവശ്യമായ ഭക്ഷണം ഡെലിവറി ബോയുടെ ഡെലിവറി ബോയ് വഴി അയാൾ വീട്ടിലെത്തിച്ചു കഴിക്കുന്നു കൂടാതെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് അയാൾക്ക് വഴി തെറ്റിപ്പോയാൽ ഫോണിൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷനടുത്ത് അയാൾക്ക് ഏത് ഏത് സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരാനും വിവരവിനിമയ സാങ്കേതികവിദ്യ അയാളെ വളരെയധികം സഹായിക്കുന്നു കൂടാതെ പ്രായമായ ആളുകൾക്കും ഇത് വളരെയധികം പ്രയോജനകരമാണ് കുട്ടികൾ മുതൽ പ്രായമായ ജനങ്ങൾ വരെ വിവരവിനിമയ സാങ്കേതികവിദ്യയെ എല്ലാകാര്യത്തിനും ആശ്രയിക്കുന്നു ഗുണ ഗുണവും ദോഷവും ഒരുപോലെ അടങ്ങിയതാണെങ്കിലും ഗതാഗത വ്യവസായത്തെ സംബന്ധിച്ചോളം അതു വളരെയധികം പ്രയോജനം മനുഷ്യർക്ക് ലഭിക്കുന്നു കൂടുതൽ വിവരങ്ങളറിയുവാനും കൂടുതലറിയുവാനും കൃത്യസമയത്ത് യഥാക്രമം കൃത്യമായി എത്തിച്ചേരുവാനും അത് സഹായിക്കുന്നു